അ ഹലോ ഇത് ഹാപ്പി റെസ്റ്റൊറൻറ്റാണോ അ അതെയല്ലെ എൻ്റെ പേ നജ്ല ഞാന് മൽപ്പുറത്തുനിന്ന് കാട്ടിങ്ങൽനിന്നാണ് വിളിക്കുന്നത് എൻ്റെ മോളെ കല്യാണമുണ്ട് അടുത്ത ഇരുപത്തിയൊന്നാം തീയതി അപ്പോള് കല്യാണത്തിന് കുറച്ച് മധുര പലഹാരങ്ങൾ ഓഡർ ചെയ്യണമെന്നുണ്ട് അപ്പോള് അതിന് വേണ്ടിയിട്ടാണ് അപ്പോള് എന്തൊക്കെ മധുര പലഹാരങ്ങളാണ് നിങ്ങള് ഉണ്ടാക്കുക എന്നുള്ളതെന്ന് പറയാമോ അതെയോ എനിക്ക് കുറച്ച് ലഡുവും അത് പോലെതന്നെ ജില്ലേബി അ കുഞ്ഞ് ജിലേബി ഉണ്ടല്ലൊ പലെ കളറിലുള്ളെ അതും പിന്നത്പോലെ തന്നെ ആ അതെ പച്ച പച്ച ഓറഞ്ച് പിന്നെ വെള്ള അ അത് അത് മതി പിന്നത് പോലെ തന്നെ ലഡു വേണം രണ്ട് കളറോ അല്ലെങ്കില് മൂന്ന് കളറൊക്കെ ലഡു വേണം പിന്നതേ പോലെതന്നെ ശർക്കര മിട്ടായി ഉണ്ടെങ്കില് അത് വേണം അപ്പോള് അത് അത് പോലെ തന്നെ ഗുലാൻ ജാം ഉണ്ടെങ്കിലതും വേണം കേട്ടൊ അപ്പോള് അതിന് വേണ്ടിയിട്ട് ആണ് അത് ഓര്ഡര് ചെയ്യാന് വേണ്ടിയിട്ടാരുന്നു ഞാനിവിടേ അടുത്തുള്ള കടകളിലോ റെസ്റ്റോറൻറ്റുകളിലൊക്കെ നോക്കി പക്ഷെ എനിക്കതൊന്നും അവടെയൊന്നുവില്ല അപ്പ ഹാപ്പി റെസ്റ്റോറൻറ്റിലുണ്ടെന്ന് ഇവടെ അടുത്തുള്ള എൻറ്റൊരു ഫ്രെണ്ട് പറഞ്ഞു അപ്പോള് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ വിളിച്ചത്